നമ്മുടെ വീടുകളിലെ കുട്ടികള്ക്ക് പത്രം വായനയിലൂടെ അവര്ക്ക് അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചു വരുന്ന പേജിലൂടെ അല്ലെങ്കില് പത്രം വായനയിലൂടെ അവര്ക്ക് വളരെ അധികം പ്രയോജനമുണ്ടാകുന്ന അവരുടെ പല ഡെയിലി ലൈഫിലെ നടക്കുന്ന കാര്യങ്ങളുടേയും എല്ലാം ഡിപ്പെൻ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളും പിന്നെ അവര്ക്ക് വിദ്യാഭ്യാസത്തിനും വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഡെയിലി പത്രം വായിക്കുന്നതിലൂടെ കുട്ടികള്ക്ക് പുതിയ പുതിയ കാര്യങ്ങളിലുണ്ടാവുന്ന അറിവ് കിട്ടുന്നതിനും അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പേജിൽ വരുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങള് കുട്ടികള്ക്ക് വേണ്ടുന്ന ആക്റ്റിവിറ്റീസും കാര്യങ്ങളും ഇല്ലെങ്കില് അവർ പഠിക്കുന്നതുമായിട്ട് ബേയ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് അതിൽ വരുന്ന അതു കാരണം അവര്ക്ക് അത് വളരെയധികം ഹെല്പ്ഫുള്ളായിട്ട് തന്നെയാണ് പത്രത്തിൽ വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ പേജെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പത്രം ഡെയിലി പത്രം വായിക്കുക എന്ന് പറയുന്നതും അതൊരു കുട്ടികളെ വിദ്യര്ത്ഥികളെ സംബന്ധിച്ചുള്ള ഒരുപാട് ഹെല്പ്ഫുള്ളായിട്ട് തന്നെയാണ്